ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല നാടോടി നൃത്തങ്ങൾ എന്നു പറഞ്ഞാൽ ചാക്യാർക്കൂത്ത് ചാക്യാർക്കൂത്ത് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവ കാലഘട്ടത്തിലാണിത് അരങ്ങേറുന്നത് അതും ഈ നമ്മുടെ ദേവീക്ഷേത്രങ്ങൾ പോലെയുള്ള അതായത് മഹാദേവൻ്റെ ദേവീക്ഷേത്രങ്ങൾ പോലെയുള്ള അമ്പലങ്ങളിലാണിത് കൂടുതലായിട്ടും നടന്നു വരുന്നത് അതുപോലെതന്നെ കഥകളി കഥകളിയും ഇതുപോലെതന്നെ കഥകളിയെന്നു പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും പൊതുവെ ഇങ്ങനെയൊരു കാണാൻ പറ്റുന്നുണ്ട് കാരണം എന്നു പറഞ്ഞാൽ ഇപ്പം ഇപ്പം റ്റൂ വിനോദസഞ്ചാരികൾക്കു വേണ്ടി പല റിസോർട്ടുകളിലും ഇപ്പോൾ കഥകളിയൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് പക്ഷേ അമ്പലങ്ങളിലെ പുരാതന കാലഘട്ടങ്ങളിലുള്ളവരുടെ കഥകളിയാണ് കഥകളി പിന്നെയെന്നു പറഞ്ഞാൽ ഗരുഡൻ തൂക്കം ഗരുഡൻ തൂക്കമെന്നു പറഞ്ഞാൽ അത് ഉറപ്പായും അത് വേറെയെങ്ങുമില്ല അത് നമ്മുടെ തെക്കൻ കേരളത്തിൽ അതായത് നമ്മുടെ കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല കണ്ണൂർ ജില്ലയിൽ മാത്രം കണ്ടു വരുന്ന ഒരു കലാ സൃഷ്ടിയാണ് നമ്മുടെ ഈ ഈ ഗരുഡൻ തൂക്കം പിന്നെയെന്നു പറഞ്ഞാൽ നമ്മുടെ ചാക്യാർക്കൂത്ത് ചാക്യാർക്കൂത്ത് എന്നൊക്കെ പറഞ്ഞാലത് എല്ലാ ഉത്സവങ്ങങ്ങൾക്കൊന്നുമില്ല വളരേയധികം കുറവാണ് അതുപോലെതന്നെ അതിനെ അത്യാവശ്യം നല്ല രീതിയ്ക്ക് ഇപ്പോൾ ചാക്യാർക്കൂത്തൊക്കെ നടക്കുന്നുണ്ട് അടുത്തുള്ള അമ്പലങ്ങൾ എന്നു പറഞ്ഞാൽ ദേവീ ക്ഷേത്രങ്ങളിലാണ് കൂടുതലും ഇതൊക്കെ കണ്ടു വരുന്നത് പിന്നെയെന്നു പറഞ്ഞാൽ നാടൻ പാട്ടുകൾ എന്നു പറഞ്ഞാൽ